എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോറും കറിയും തന്നെയാണ് സദ്യ ആണ് കൂടുതലിഷ്ടം പിന്നെ കുത്തരിച്ചോറും അതിൻ്റെ കൂടെ കുറെ കറികളും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനാണ് എനിക്കേറ്റവും ഇഷ്ടം കഴിക്കാന് ഇപ്പം തോന്നണത് ഭക്ഷണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ കപ്പ ബിരിയാണിയാണ് ആ അത് വീട്ടിലുണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അധികം കല്ല്യാണത്തിനൊക്കെയാണല്ലോ കപ്പ ബിരിയാണികൾ നമ്മളിങ്ങനെ ഡെയ്ലി വീട്ടിലുണ്ടാക്കണ ഒരു ഭക്ഷണം അല്ലല്ലോ അതുകൊണ്ടുതന്നെ അത് ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കാന് തോന്നും ഭയങ്കര കൊതിവരും കപ്പബിരിയാണി കഴിക്കാന് വേണ്ടീട്ട് അത് കല്ല്യാണത്തിന്റെ തലേന്ന് കല്ല്യാണ വിടുകളിൽ പണ്ടൊക്കെ തലേന്ന് മെയിനായിട്ട് ആള്ക്കാർ വന്നുകൊണ്ടിരുന്നത് കപ്പ ബിരിയാണി കഴിക്കാനാണ് അതിന്റെ ഒരു രുചി വേറെ തന്നെയാണ് കപ്പ ബിരിയാണിയെന്നു പറഞ്ഞപ്പോൾത്തന്നെ വായിൽക്കൂടി വെള്ളം വന്നു എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇപ്പം കപ്പ ബിരിയാണി തന്നെ കഴിക്കാനാണ് എനിക്ക് തോന്നണത് എവിടെ പോയിരുന്നു കഴിക്കാനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ഇപ്പോൾ കല്ല്യാണ വിടുകളില്ലല്ലേ ഉണ്ടാവാറുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വിടുകളിലുണ്ടാക്കേണ്ടേ അപ്പം വിട്ടിലിരുന്ന് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം കപ്പ ബിരിയാണി നല്ല ഇറച്ചിയൊക്കെ ഇട്ട് കപ്പയൊക്കെ നല്ലോണ്ണം വെന്ത് കുഴഞ്ഞ് നല്ല രസം കൊതിയാവുന്നു